ഞങ്ങളുടെ കയ്യിൽ തലമുറകളായി കൈമാറി വരുന്ന കുടുംബ പാചകം ഏതാണെന്ന് പറഞ്ഞാൽ സാമ്പാറാണ് ഞങ്ങൾ എസ്പെഷ്യലി എല്ലാത്തിനും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് സാമ്പാറെന്നു പറഞ്ഞാൽ സദ്യയ്ക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതില്ലാണ്ട് പറ്റില്ല എന്ന് പറയുന്ന സാധനം തന്നെയാണ് സാമ്പാർ എന്നു പറയുന്നത് അത് ഇവിടെ അമ്മയുണ്ടാകുന്ന ഓരോ മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എല്ലാ പച്ചക്കറിയും വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി കേരറ്റ് കുമ്പളങ്ങ ചേന അങ്ങനെ എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് അതിനെ വേവിച്ച് പരിപ്പിട്ട് പരിപ്പിൽ പരിപ്പിൽകൂടി അത് വേവിച്ച് എടുത്തിട്ട് അതില് ഒരു മൂന്ന് സ്പൂണ് മുളകുപൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് തേങ്ങ ഒക്കെ ചിരകി തേങ്ങ എണ്ണയിൽ ഇട്ട് വറുത്ത് അപ്പോൾ ഒരു നല്ലൊരു മണം വരും എണ്ണയിൽ ഇട്ട് വറുക്കുമ്പോൾതന്നെ ആ ഒരു ടേസ്റ്റിയായിട്ടുള്ള ഒരു മണം നമ്മൾക്ക് വരുന്നതാണ് ഓരോ സമയത്ത് അത് വറുത്ത് അതില് കുറച്ച് മഞ്ഞൾപ്പൊടി മുളകുപൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിത്തള പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റി അതിനെ അത് കുറച്ച് ചൂടാറാൻ വച്ച് അതില് കുറച്ച് ഉപ്പൊക്കെയിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്ത് അതിനെ നേരെ അത് അടിച്ചെടുത്ത് അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ കഷ്ണങ്ങൾ ഒക്കെ നന്നായി വെന്ത് വരുമ്പോൾ ഇത് എടുത്ത് ഒഴിക്കുക ഇതെടുത്ത് ഒഴിച്ച് കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് അതിൽ കൂടെ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ നല്ല പാകത്തിന് ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് കടുകും അതിനോട് കടുകും അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയൊക്കെ ഏഡ്ഡ് ചെയ്ത് കടുകൊക്കെ പൊട്ടിത്തെറിച്ച് അതിനൊപ്പം കറികളോടൊപ്പം ഏഡ്ഡ് ചെയുമ്പോൾ ഒരു കിട്ടണത് നല്ലൊരു മണം പണ്ടുതൊട്ടേ ഇവിടെ എല്ലാവരും കണ്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് സാമ്പാർ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന സാധനം തന്നെയാണ് സാമ്പാർ എന്ന് പറയുന്നത്